മലയാളത്തിൽ ഒട്ടനവധി പഴഞ്ചൊല്ലുകളും പ്രയോഗങ്ങളും ഉണ്ട് എന്നാൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതും എന്നെ സ്വാധീനിച്ചതും ആയ ഒരു പഴഞ്ചൊല്ലാണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നത് ആ പ്രയോഗം വളരേയധികം സത്യം തന്നെയാണ് കാരണം ഒരു സാധനം നമ്മുടെ അടുത്തുള്ളപ്പോൾ അതിൻ്റെ വില നമ്മൾ അറിയുന്നില്ല ആ ഒരു സാധനം നമ്മുടെ അടുത്ത് ഇല്ലാതാവുമ്പോഴും അത് നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത്